ഹലോ

ഹലോ കേൾക്കാമല്ലോ ഹലോ ആ ഹലോ ഞാനിന്ന് അവിടെ കാർ വാഷ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടാരുന്നു കേട്ടോ വണ്ടി നമ്പർ കെ എൽ സീറോ വൺ ടു നയൻ സിക്സ് നയൻ ഒരു റെഡ് കാർ ആയിരുന്നു റെഡ് കളർ ആ വേറൊന്നും ചെയ്യാനല്ല ഇതെന്തു വാഷാണ് നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് എനിക്ക് ഒട്ടും ടൈമും ഇല്ല അത്യാവശ്യമായിട്ടായിരുന്നു അവിടെത്തന്നെ സമീപിച്ചത് മുമ്പും പലതവണ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെയൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല ഇതുപക്ഷേ ഒട്ടും ക്ലീനായിട്ടില്ലായിരുന്നു പുറമെ മാത്രം വാഷ് ചെയ്തു തന്നതുപോലെ ഉണ്ടായിരുന്നു എന്താ ഇല്ലയില്ല ഒട്ടും ക്ലീനായിട്ടില്ല ഇതെന്താ ഇത്തവണ ഇങ്ങനെ പറ്റിയത് ഞാൻ രാവിലെ ഒരു പതിനൊന്നു മണി ആയപ്പോഴാണ് കൊണ്ടുവന്നത് ആ ആ സ്ഥിരം ഞാൻ ഇവിടെത്തന്നെയാണ് വരുന്നത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനല്ലേ വണ്ടി തരുന്നത് ഒന്നാമത് അവിടെ പണ്ടുമുതലേ ഞങ്ങളവിടെയാണ് തരുന്നത് തീർത്തും വിശ്വാസമുള്ളൊരു സ്ഥാപനമായിരുന്നു അപ്പോൾപ്പിന്നെ ഇങ്ങനെ ചെയ്താൽ ഇനിയിപ്പോൾ എന്തു ചെയ്യും

അത് ബുദ്ധിമുട്ട് അത് ബുദ്ധിമുട്ടല്ലേ എൻ്റെ സമയം വേസ്റ്റ് ആവുകയല്ലേ ചെയ്യുന്നത് എനിക്ക് വേറെ ആവശ്യങ്ങളില്ലേ വണ്ടിയുടെ ഡസ്റ്റ് ഒന്നും പോയിട്ടില്ലായിരുന്നു ഇൻ്റീരിയലൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു മാത്രമല്ല സീറ്റിലൊക്കെ ഫുൾ പൊടിയായിരുന്നു മാറ്റൊന്നും വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു പുറമെ മാത്രം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് ആ അതെയതെ ആരായാലും നിങ്ങളൊന്നു ശ്രദ്ധിക്കേണ്ടേ അത് ശ്രദ്ധിക്കേണ്ടേ ഡാഷ്ബോർഡൊന്നും വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു ആ എന്തായാലും ഞാൻ പുറത്തു പോവാനായിട്ട് അതാണ് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരേയും കൊണ്ട് പോകാനായിട്ടായിരുന്നു വണ്ടി വാഷ് ചെയ്യാനായിട്ട് തന്നത് നോക്കിയേ ഇങ്ങനെയൊരു പണിയായല്ലോ ഇത് ആ ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ് ഞാൻ ഒരു സമയം പറയാം അപ്പോൾ നിങ്ങൾ ഫ്രീയാകുന്ന സമയം പറയുക അപ്പോൾ നിങ്ങൾ വന്ന് വണ്ടിയെടുത്തിട്ട് പോയാൽമതി പക്ഷെ ഇനിയിങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവരുത്

ആ ഓക്കെ ഓക്കെ ശരി ശരി